ഹലോ വയനാട് റെസ്റ്റോറന്റ് ആരായിരുന്നു

അ ഓക്കെ ഇവിടെ ട്രഡീഷണൽ ഫുഡ് ആയിട്ട് ഉച്ചയ്ക്ക് സദ്യ മാത്രമേ കൊടുക്കുന്നുള്ളൂ സദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തരം കറികളുണ്ടാകും രണ്ട് പായസം ഉണ്ടാകും അങ്ങനെ എല്ലാം ഉണ്ടാകും നമുക്ക് ട്രഡീഷണൽ ഫുഡ് ആയിട്ട് അത് മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിൽ മസാല ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും മസാല ദോശ വട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും മ് പിന്നെ നമുക്ക് ഉള്ളതൊക്കെ നോൺ വെജ് ഐറ്റംസ് ആണ് അപ്പം ഉച്ചയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചോറ് അതായത് പലതരം അരി അരിയുടെ ചോറുണ്ടാകും ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ സാമ്പാർ പച്ചടി പരിപ്പ് കറി പിന്നെ കൂട്ടുകറി ഉപ്പേരി അവിയൽ അച്ചാറ് പുളിയിഞ്ചി പിന്നെ രസം മോര് പിന്നെ അതായത് രണ്ട് തരം പായസം അതായത് പാലട പായസവും ഉണ്ടാവും പിന്നെ അടപ്രഥമൻ ഉണ്ടാവും പിന്നെ പായസം ഓരോ വ്യത്യാസം ഉണ്ടാവും ചില ദിവസം സേമിയ ആയിരിക്കും അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയുള്ളതാണ് നമ്മളിവിടെ വൺ ഫിഫ്റ്റി ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഒരു ഫുഡിന് എന്നാൽ നിങ്ങൾ ഓ നോൺ വെജ് തന്നെ ഇവിടെ നോൺ വെജ് നമുക്ക് ബിരിയാണി ഐറ്റംസ് പ്രോൺസ് ഉണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ എല്ലാ തരം നോൺ വെജ് ഫുഡ്സും ഉണ്ട് അതുപോലെ ഫിഷ് ഫ്രൈ അതായത് ഫിഷ് ഫ്രൈ കരിമീൻ അതായത് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ പിടിച്ചിട്ട് അപ്പം തന്നെ കറി അതായത് ഫ്രൈ ആക്കുന്ന ഫിഷ് ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് നിങ്ങൾ എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ഓ റൂംസും അവൈലബിൾ ആണ് നമുക്ക് അത് എല്ലാം കുടെ ഉള്ളൊരു ഇതാണേ റെസ്റ്റോറന്റ് ആണേ റൂംസ് നമുക്ക് ഇവിടെത്തന്നെ അവൈലബിൾ ആണേ ഓ ടാക്സി ഒക്കെ റെ അറേഞ്ച് ചെയ്തുതരാം നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഡേറ്റ് ഒക്കെ പറഞ്ഞൊന്ന് ഫിക്സ് ആക്കിയിട്ടാണെങ്കിൽ നമ്മൾ അത് റെഡി ആക്കി തരാം പിന്നെ അ പിന്നെ അതുപോലെ നിങ്ങൾ ഇപ്പോൾ സദ്യ അതായത് നിങ്ങൾക്ക് ട്രഡീഷനെലി സദ്യയൊക്കെ വേണമെങ്കിൽ നമ്മളോട് ആദ്യം ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ കുറേ പേരായിട്ട് വരുമ്പോൾ ചിലപ്പം നമുക്ക് വേറെ കസ്റ്റമേഴ്സ് വരുമല്ലോ അപ്പം ചിലപ്പം ഫുഡ് തീർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ആദ്യമേ പറയണം അതുംകൂടെ പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അ എന്നാൽ ഓക്കെ അ അങ്ങനെയാണെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ